നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ ആചാരങ്ങളും അനുഷഠാനങ്ങളും ഉത്സവങ്ങളും എല്ലാം ഉണ്ട് അത് നമ്മള് കാലംകാലം കാലംകാലമായി വഴിപ്പെട്ടു വരുന്ന കുറെ സംഭവങ്ങളുണ്ട് വേലകളുണ്ട് പൂരങ്ങളുണ്ട് അതുപോലെ തന്നെ അതല്ലാതെ കുറച്ച് ഫെസ്റ്റിവൽസുണ്ട് ഓണം വിഷു അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്ക നമ്മള് ഇപ്പളും ഫോളോ ചെയ്യുന്നു എന്ന ആ ഇമ്പോർട്ടൻറ്റായ കാര്യങ്ങളാണ് അമ്പലത്തി നടത്ത് നടക്കുന്ന ഉത്സവങ്ങള് അത് വർഷത്തിലെ എപ്പോഴും ഉത്സവം ഉണ്ടാവും അതുപോലെ തന്നെ പൂരം ഉണ്ടാവും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസക്കെ ഉണ്ടാവും പിന്നെ നമ്മള് നമ്മുടെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ഓട്ടം തുള്ളല് കഥകളി അതുപോലെ അങ്ങനെ പറഞ്ഞ കുറച്ച് കലകളും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ കൽച്ചറിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് ഇതൊക്കെ നമ്മള് അതിനേയൊക്കെ നമ്മള് ഇപ്പഴും ഇപ്പളും അതേപോലെ തന്നെ സൂക്ഷിക്കുന്നു അതേപോലെ തന്നെ വഴിപ്പെട്ട് വരുന്നു